അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ചേ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്